പതിനെട്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തിയിരുപത്തിരണ്ട് ഇരുപത്തെട്ട് പൂജ്യം മൂന്ന് രണ്ടായിരത്തിമൂന്ന് പത്തൊൻപത് പൂജ്യം എട്ട് രണ്ടായിരത്തിരുപത്തിനാല് പ പത്ത് പൂജ്യം രണ്ട് രണ്ടായിരത്തിയിരുപത്തി ഒന്ന് പത്ത് പൂജ്യം നാല് രണ്ടായിരം